മാലിന്യം വലിച്ചെറിയരുത് അത് സമൂഹത്തിന് ദോഷമാണ് പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ മാസവും ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കുവാൻ വരുന്നുണ്ട് നമ്മളപ്പം നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി അവരുടെ കയ്യിൽ ഏല്പിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം നമ്മൾ പറമ്പിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടുകയാണെങ്കിൽ അത് സമൂഹത്തിന് ദോഷമാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നതു മൂലം വളരെയേറെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ് പല പല അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് സമൂഹത്തിലിപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലവും വലിച്ചെറിയുന്നതു മൂലവും വളരെയേറെ ദോഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് പറമ്പുകളിലൊക്കെ കിടക്കുകയാണെങ്കിൽ അതിൽ മഴവെള്ളം വീണ് കൊതുക് പിന്നേ കൊതുകുകൾ മുട്ടയിടുകയും അതിലൂടെ ഒരുപാട് കൊതുകുകൾ ഉണ്ടാകുകയും കത്തിക്കുന്നതു മൂലം പുക ശ്വസിച്ച് ക്യാൻസറും പോലെയുള്ള രോഗങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പരിസരവും നമ്മുടെ പൊതു ഇടങ്ങളിലും പ്ലാസ്റ്റിക്ക് മറ്റും വലിച്ചെറിയരുത് വൃത്തിയായി കിടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ടൂറിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു വളരെയേറെ ജനങ്ങൾ നമ്മുടെ കൊച്ചു കേരളം സന്ദർശിക്കുകയും നമ്മുടെ ദൈവത്തിൻറ്റെ സ്വന്തം നാടെന്നു പറയുകയും ചെയ്യുന്ന ഈ കേരളത്തിൽ നമ്മൾ നമ്മുടെ കടമയാണ് നമ്മുടെ കടമയാണ് എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് പിന്നെ നമ്മുടെ പരിസരം എല്ലാം ശുചിയായിട്ടു വെക്കണം അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരുന്നതും കുറയും പഞ്ചായത്തുകൾ അതിന് ഇപ്പോൾ പല പല നടപടികളും എടുത്തിട്ടുണ്ട് അതിൽ പോലീസിനും ഒരു പരിധി വരെ ഇതിൽ പൊതുസാ പൊതു ഇടങ്ങളിൽ റോഡുകളിലും മറ്റും പ്ലാസ്റ്റിക്ക് ഇടുന്നതു മൂലം അവർക്ക് കേസെടുക്കാനൊക്കെ പറ്റും അപ്പോൾ പിന്നെ ഓരോരുത്തരും അതു ചെയ്യാതിരിക്കാൻ നോക്കും പഞ്ചായത്തിലാണെങ്കിൽ തന്നെയും അവർ ഇടക്ക് വന്ന് പരിസരം വീക്ഷിക്കുകയും ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇപ്പം വന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതു തടയാൻ പറ്റും അതു മൂലം നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ നാടിനെ നമ്മുടെ വീടിനെ നമ്മുടെ വീട്ടുകാരെയൊക്കെ രക്ഷിക്കാൻ പറ്റും അജൈവ വസ്തുക്കൾ നാം ഉന്മൂലനം ചെയ്യണം പ്ലാസ്റ്റിക് പോലെയുള്ളവ നമ്മൾ

സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനയ്ക്ക് നൽകുക നമ്മുടെ സമൂഹവും നമ്മുടെ നമ്മുടെ സമൂഹം അതെല്ലാവരും നമ്മളേറ്റെടുക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലാതെ ഒരാൾക്കോ ഒരു വ്യക്തിക്കോ മാത്രം ഉള്ളതല്ല ഒരു സമൂഹത്തിനു മൊത്തം ഉള്ള ഉത്തരവാദിത്ത്വമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം അതു മറവു ചെയ്യുകയെന്നുള്ളത് അതു നാം എല്ലാത്തർ എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്ത്വമുണ്ട് പോലീസ് അവരുടെ ജോലികൾ ചെയ്യുന്നു പഞ്ചായത്തുകൾ അവരവരുടെ ജോലികൾ ചെയ്യുന്നു നാം ഓരോരുത്തരും നമ്മുടെ ജോലികൾ ചെയ്യുന്നു ഓരോരുത്തരും പരിശ്രമിച്ചാൽ മാത്രമേ ഇതു പ്രാവർത്തികമാക്കുകയുള്ളു പഞ്ചായത്തിലെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ ഹരിതകർമ്മസേന വരുന്നതു മൂലം നമുക്കൊരുപാട് സഹായമാണ് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ വലിച്ചെറിയോ കത്തിക്കുകയൊക്കെയോ ആണ് മുൻപു ചെയ്തിരുന്നത് ഇപ്പോളാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും അവർക്ക് അതു കൊടുക്കുന്നു അതു മൂലം നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ശുചിയായിട്ടാണ് കിടക്കുന്നത് അതു മൂലം നമുക്ക് കൊതുകുകളൊന്നുമില്ല പരിസരമൊക്കെ വൃത്തിയായിട്ടും അതു മൂലസുഖങ്ങളൊന്നും നമുക്ക് വരുന്നില്ല അതു നല്ല ശുചിത്വമോടെയാണ് എല്ലാം കിടക്കുന്നത് പിന്നെ വിനോദ സഞ്ചാരികൾ നമ്മുടെ സമൂഹം നമ്മുടെ ന്നേ സ്ഥലങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് കിടന്നാലേ വിനോദ സഞ്ചാരികളൊക്കെ വരികയുള്ളു അവർ വന്നു കാണുമ്പോൾ ആ പരിസരം അതുമെല്ലാം വൃത്തിയായിട്ട് കിടക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം